ക്രിസ്ത്യാനികളുടെ പ്രധാനമായ ഒരു കലാരൂപമാണ് മാർഗ്ഗം കളിയെന്ന് പറയുന്നത് ഈ മാർഗ്ഗം കളിയിൽ ഇപ്പോൾ മാർത്തോമാ ശ്ലീഹാ കേരളത്തിൽ വന്നത് തൊട്ടുള്ള കാര്യങ്ങളും തോമാശ്ലീഹായുടെ പരിശുദ്ധ പ്രവർത്തനത്തെപ്പറ്റിയും എല്ലാം പ്രതിപാദിക്കുന്നുണ്ട് മാർത്തോമാ ശ്ലീഹായെക്കുറിച്ചാണ് മാർഗ്ഗംകളിയിൽ മൊത്തം പറയുന്നത് ശ്ലീഹായുടെ പരിശുദ്ധ പ്രവർത്തനത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ഒക്കെയാണ് പതിനാല് പാദങ്ങളാണ് മാർഗ്ഗം കളിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പതിനാല് പാദങ്ങളിൽ അവസാനത്തെ പതിനാലാമത്തെ പാദത്തിൽ മാർത്തോമാ ശ്ലീഹ മരിക്കുന്നതും എല്ലാം വിശദീകരിക്കുന്നുണ്ട് അപ്പം ഈ ക്രിസ്ത്യാനികളുടെ പ്രധാനമായ ഒരു കലാരൂപമാണ് കൂടുതൽ സ്ത്രീകളാണ് ഇത് കളിക്കുന്നത് ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് തനതായ രീതിയിൽ പണ്ടത്തെ അമ്മച്ചിമാരുടെ ആ ഒരു ശൈലിയിലാണ് കുണുക്കും കാശിമാലയും ഒക്കെ ഇട്ട് വളരെ പഴയ രീതിയിൽ ഉള്ള ആൾക്കാരുടെ ഒരു പ്രതിനിദാനം ചെയ്താണ് ഈ കലാരൂപം നമ്മൾ സ്റ്റേജിന്മേലെയൊക്കെ കളിക്കുന്നത് ആ കലാരൂപം ഇപ്പം സ്കൂളുകളിലെ കലാമത്സരങ്ങളിലും കലോത്സവത്തിലും കോളേജുകളിലെ കലോത്സവത്തിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതൊരു മത്സര ഇനമായി മാറിയിട്ടുണ്ട് ഈ മാർഗ്ഗം കളിയെന്നു പറയുന്നത് അപ്പം പിന്നെ ഈ ഹിന്ദുക്കളുടെ ഒരു ഹിന്ദുമതസ്ഥരുടെ ഒരു കലാരൂപമാണ് ഈ തിരുവാതിര എന്നു പറയുന്നത് തിരുവാതിരയിലും ഇതുപോലെ അവരുടെ മതത്തെപ്പറ്റിയും അവരുടെ ആ ഒരു ദൈവങ്ങളുടെ ആ ഒരു ഇതൊക്കെയാണ് നാടൻപാട്ടും അതും ഒക്കെ വച്ചാണ് അവർ തിരുവാതിര കളിക്കുന്നത് അത് അവരുടെ ഒരു ശൈലിയാണ് അതുപോലെ തന്നെയാണ് ഒപ്പനയെന്ന് പറയുന്നത് ഒപ്പന എന്നു പറയുന്നത് പ്രത്യേകിച്ചും മുസ്ലിംസ് കളിക്കുന്നതാണ് അവരുടെ കല്യാണങ്ങളിലും അതുപോലെ തന്നെ ചടങ്ങുകളിലും എല്ലാം ഇപ്പോൾ തിരുവാതിരയും ഒപ്പനയും ഒക്കെ ഓരോ മത്സര ഇനങ്ങളാക്കിയിട്ടുണ്ട് സ്കൂളിലും കോളേജുകളിലും ഒക്കെ അപ്പം ഈ മാർഗ്ഗം കളിയെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു കലാരൂപമാണ് അത് കല്യാണത്തിൻ്റെ തലേന്നും ഈ മധുരം വെപ്പിനും പിന്നെ സ്റ്റേജുകളിൽ ഓരോ കലാരൂപം ആയിട്ടും ഒക്കെ കളിക്കാറുണ്ട് ഓരോ പരിപാടിക്കും ആഘോഷങ്ങൾക്കുമൊക്കെ ഈ മാർഗ്ഗം കളി കളിക്കാറുണ്ട്